ഹലോ സാറേ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് കൊല്ലം ജില്ലയിൽ അഞ്ചല് തടിക്കാട് ഭാഗത്ത് നിന്നാണ് വിളിക്കുന്നത് എന്താണ് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വഴി ഭാഗത്തായിട്ട് ജലസമ്പൃദ്ധിയുടെ പെട്ടെന്ന് ഒന്ന് കുറഞ്ഞതായി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് പെട്ടെന്നാണ് ഞങ്ങൾ വീട് ജോലി അങ്ങനെ ചെയ്തതിനിടയ്ക്ക് ഇടയിലാണ് ഇതിങ്ങനെ കുറയണത് ശ്രദ്ധയിൽ പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എ എക്സ്പ്ലയിൻ ചെയ്യാൻ പറ്റുമോ എങ്ങനാണ് ഇതിൻ്റെ ജലസബർദ്ദം എങ്ങനെ പരിശോധിക്കാമെന്ന് ഒന്ന് ധാ വിശദമായിട്ട് ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ ഞങ്ങൾ ഏതായാലും ഇവിടുള്ള സമ ചോർച്ചകളും പ്ലംബിങ്ങിൻ്റെ ചോർച്ചകളും അല്ലെങ്കിൽ അതിന് എന്തേലും മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കോണം ഇവിടുത്തെ നാട്ടിലുള്ള കുറേ പ്ലംബർമാർ വെച്ചിട്ട് ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ ഇതാക്കാം എന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ പിന്നെ തുടർന്ന് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒന്ന് പരിഹരിച്ച് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ല ക ഇങ്ങളെ കൊണ്ട് കഴിയണ അത്ര പെട്ടെന്ന് തന്നെ ഒന്ന് പ്രശ്നം പ്രശ്നം പരിഹരിക്കാം നമ്മളെ ജീവിത പ്രശ്നം തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യമാണല്ലോ ജീവിത പ്രശ്നം ആയതൊന്നാണ് അപ്പം കഴിയുന്ന അത്ര പെട്ടെന്ന് ഇതിൽ നിന്നും എങ്ങനേലും ഒന്ന് ശരിയാക്കാൻ അഭ്യർത്ഥിക്കാം അപ്പം ശരി എന്നാൽ ഓക്കെ താങ്ക് യൂ